കേള്ക്കാമോ ല്ലേ ആക്ച്വലി ഞാനൊരു പ്രീ വെഡിങ് ഷൂട്ടിന്റെയൊരു കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ടായിരുന്നു വിളിച്ചത് ഓക്കെ അപ്പോള് ആക്ച്വലി എൻ്റെ മാര്യേജെന്നു പറഞ്ഞാല് ഇപ്പോള് ഡേറ്റ് ഫിക്സ് എൻഗേജ്മെൻ്റ് ആക്ച്വലി മാർച്ച് ഫോർട്ടീനാണ് ഫോർട്ടീന്തിനാണ് ഫിക്സ് ചെയ്തേക്കുന്നത് മാർച്ച് ഫോർട്ടീൻ എൻഗേജ്മെന്റ് ആ അത് ആ അത് എൻഗേജ്മെൻറ് നമ്മള് ആ പിന്നെ മാരേജെന്നു പറയുന്നത് എപ്രിൽ ഏപ്രിൽ ഫിഫ്റ്റീന്തിനാണ് മാര്യേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതു നമ്മള് ഓക്കെ അതു നമ്മള് ട്രിവാന്ഡ്രത്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഞാനിപ്പോള് സ്ഥലത്തില്ല ഞാൻ ഖത്തറിലാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോള് ഞാൻ ഞാൻ അതെ നമുക്കൊരു പ്രീ വെഡിംഗ് ഷൂട്ടും വേണം

കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ

പ്രൈസ് റേഞ്ച് നമുക്ക് ലക്ഷ്വറി പിടിക്കാം അതു ചെയ്യാം ഓക്കെ ഓക്കെ